ഞങ്ങളുടെ വീട്ടിൽ പുസ്തകങ്ങളുണ്ട് കുറച്ചൊക്കെ വായിച്ച് കുറെയെല്ലാം വായിച്ച് അത് ഇങ്ങനെ വായിച്ച് വായിച്ച് തീർന്നിരിക്കുകയാണ് പിന്നെ അടുത്തൊരു ലൈബ്രറി ഉണ്ട് അവിടെ പോയി പുസ്തകം ഭർത്താവ് എടുത്തു കൊണ്ടു തരും അവിടുന്ന് പിന്നെ ഇങ്ങനെ അതു വായിക്കും പിന്നെ ഇങ്ങനെ കൊണ്ടു വരും അങ്ങനെ വായിച്ച് വായിച്ച് ഇരിക്കുകയാണ് ഇപ്പം എവിടുന്നൊക്കെയോ കുറേ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ട് തന്നിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ വായിച്ച് ഓരോന്നും മനസിലാക്കുന്നുണ്ട് പിന്നെ നമുക്കും അല്ലാതെയും വായിക്കാൻ വീട്ടിൽ ബൈബിളും അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് എല്ലാം കൂടെ കുറേ സമയം കുറച്ചു സമയം ഇതിനായിട്ട് മാറ്റിവെച്ച് വായിക്കാറുണ്ട് പിന്നെ സൺഡേ സ്കൂളിലാണെങ്കിൽ ലൈബ്രറി ഉണ്ട് അവിടുന്ന് പിള്ളേർക്ക് എടുത്തുകൊണ്ട് വന്നു വായിച്ച് പിള്ളേരോട് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്